ഇപ്പോൾ നമ്മൾ സാധാരണ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ സാധാരണ നമുക്ക് കാലാവസ്ഥ ആയിട്ട് പറയണം എന്ന് പറഞ്ഞാൽ നാല് കാലാവസ്ഥയാണ് വേനൽ മഴ വേനൽ ഉണ്ടാകും മഴ ഉണ്ടാകും കാറ്റ് അതുപോലെ തണുപ്പ് ഇതിൽ ഇപ്പോൾ വേനൽക്കാലത്തും മഴ മറ്റേ കാറ്റ് കാലത്തും വസ്ത്രങ്ങൾ അത്യാവശ്യം പെട്ടെന്ന് ഉണങ്ങാനും കാര്യങ്ങൾക്കൊക്കെ എളുപ്പമാണ് പക്ഷെ ബാക്കി രണ്ട് സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ വസ്ത്രം കഴുകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നോക്കുമ്പോൾ സാധാരണയായിട്ട് നമ്മൾ ബക്കറ്റിൽ ഇപ്പോൾ കുറേ തുണി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൾ ഒരു ബക്കറ്റ് വെള്ളത്തിൽ നമ്മൾ സർഫ് എടുത്ത് വെള്ളത്തിൽ കുറച്ച് നേരം മുക്കി വെക്കും ആദ്യം ആദ്യം കഴുകണ ഇതൊക്കെ സാ മറ്റേ ബക്കറ്റിൽ മുക്കി വെച്ചിട്ട് ഒരു അര മണിക്കൂർ കഴിഞ്ഞാൽ ഒന്നത് കുതിർന്ന് അല്ലെങ്കിൽ ഒരു സെറ്റായി വരും അപ്പോൾ നമ്മൾ ചെളിയൊക്കെ ഏകദേശം പോയി ഏകദേശം ഒന്ന് സെറ്റാകും അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ തിരുമ്പുന്നിടത്ത് എവിടെയാണോ പോയി ഇതെടുത്തിട്ട് പോകുക ക എന്നിട്ട് സോപ്പിട്ട് അതിൽ സോപ്പിട്ട് വൃത്തിയായിട്ട് തിരുമ്പുക അതായത് കല്ലിൽ അടിച്ച് തിരുമ്പണമെങ്കിൽ അടിച്ച് തിരുമ്പുക അല്ലെങ്കിൽ കല്ലിൽ കുത്തി പിഴിയണമെങ്കിൽ അങ്ങനെ കുത്തിപിഴിയുക അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുക അതിനൊപ്പം തന്നെ സോപ്പ് ഒന്നോ രണ്ടോ പ്രാവശ്യം സോപ്പിട്ട് തിരുമ്പിയിട്ട് ഒരു ബക്കറ്റിൽ ഒരു ബക്കറ്റും കൂടി വെള്ളം എടുക്കുക എന്നിട്ട് ആ ഒരു ബക്കറ്റിലേക്ക് രണ്ടാമത് നമ്മൾ കശക്കി തുണി കുതിർത്ത് കശക്കി കഴിഞ്ഞിട്ട് അതിലും അതിൽ കുറച്ച് നേരം വെക്കുക അതായത് അതിലൊരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഒരു പിന്നെ ഇങ്ങനെ നമ്മൾ തിരുമ്പി എല്ലാം തിരുമ്പി തുണി ഇങ്ങനെ തിരുമ്പി തിരുമ്പി അതിലിട്ടു കൊണ്ട് ഇരിക്കുക അപ്പോൾ അതിൽത്തെ ഏകദേശം ചെളിയൊക്കെ അതിൽ വെള്ളത്തിൽ തന്നെ ഇതായിക്കോളും എന്നിട്ട് ആ വെള്ളം പിന്നെ ഈ സർഫിട്ട ബക്കറ്റിൽ തന്നെ വീണ്ടും വെള്ളം എടുത്തിട്ട് ഒരു പ്രാവശ്യം കൂടി അതിൽ വാ അപ്പം അതിൽ കുറച്ച് സർഫിൻ്റെ ഇതൊക്കെ ഉണ്ടാകുമല്ലോ അപ്പം അത് ഇതാകിട്ട് അതിൽ ഒരു രണ്ട് വെള്ളമെടുത്തിട്ട് അതിൽ ഒന്നു കൂടി കഴുകുക എന്നിട്ട് ലാ വീണ്ടും ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് നമ്മൾ മാക്സിമം അതിൽ തന്നെ എല്ലാ തുണിയും മുക്കി ഒഴിവാക്കി വെയ്ക്കുക അതിനെ മുക്കി പിഴിയുക പിഴിഞ്ഞ് സെറ്റാക്കി വെയ്ക്കുക അപ്പോൾ അതോടുകൂടി തിരുമ്പൽ കഴിയും പിന്നെ വേനൽക്കാലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിട്ട് തുണി ഉണക്കാൻ പറ്റും സിംപിളായിട്ട് വെയിലത്ത് ഇട്ട് കഴിഞ്ഞാൽ അധികം സമയം ഒന്നും എടുക്കില്ല മാക്സിമം ഒരു അഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ അര മണിക്കൂറോ രണ്ട് മണിക്കൂറോ കൊണ്ട് തുണി ഉണക്കി കിട്ടും പക്ഷെ അഥവാ അത് മഴക്കാലത്ത് എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നമ്മൾ മഴക്കാലത്ത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ വീട്ടിൻ്റെ ഉള്ളിൽ ഫാൻ ഫാനിൻ്റെ അടിയിലൊക്കെ ഇട്ട് വെക്കുക വീട്ടിൻ്റെ ഉള്ളിൽ ഒരു അയ കെട്ടുക എന്നിട്ട് അതിൽ തുണിയിട്ട് വെക്കുക അങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാരണ വീടുകളിൽ ചെയ്യാറ് കാറ്റ് കാലത്തും വലിയ കുഴപ്പം ഉണ്ടാകില്ല പുറത്ത് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റ് കാലത്ത് തുണി പെട്ടെന്ന് പറന്ന് പോയി വീണ് ചെളിയിൽ വീഴാൻ ചാൻസ് ഉണ്ട് അപ്പോ നമ്മൾ അത് ക്ലിപ്പിട്ട് വെക്കണം കാറ്റ് കാലത്ത് തുണി അയയിൽ ഇടുമ്പോൾ ക്ലിപ്പിട്ട് വെക്കുക അപ്പോൾ അത് പറന്ന് പോകില്ല മഞ്ഞ് കാലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റും ഉണ്ടാകില്ല എന്ന് വെച്ചാൽ പക്ഷെ ഉണങ്ങാൻ ബുദ്ധിമുട്ട് ഒന്നും ഇല്ല എന്നാലും കൊ ഇപ്പോൾ വേനൽ കാലത്ത് അല്ലെങ്കിലോ വേനൽ കാലത്ത് മറ്റേ കാറ്റ് കാലത്തെ പോലെ പെട്ടെന്ന് ഉണങ്ങി കിട്ടില്ല പക്ഷെ ഉണങ്ങാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇതൊക്കെയാണ് നമ്മൾ സാധാരണ ചെയ്യേണ്ടത് പിന്നെ വെള്ളം പാഴാക്കേണ്ടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എല്ലാവരും സാധാരണ ഒന്നുമില്ലെങ്കിൽ പുഴയിൽ അല്ലെങ്കിൽ കുളിക്കാൻ പോണിടത്ത് കുളത്തിലൊക്കെ അല്ലെങ്കിൽ കനാലിൻ്റെ സൈഡിൽ ഒക്കെ നിന്നിട്ടാണ് നമ്മൾ സാധാരണ ഈ തിരുമ്പലും കാര്യങ്ങളൊക്കെ ചെയ്യാറ് അങ്ങനെയാകുമ്പോൾ വലിയ വെള്ളം പാഴാകില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുളത്തിൽ വെള്ളം ഇങ്ങനെ ഇതായി കിടക്കുകയാണല്ലോ അപ്പോൾ പിന്നെ അതിൽ വലിയ വീട്ടിൽ തിരുമ്പണമെങ്കിൽ മാത്രം കുറച്ച് ശ്രദ്ധിക്കേണ്ടു ഇപ്പം അധികം കുറച്ച് തുണികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം അതിനനുസരിച്ച് എടുക്കുക ഇപ്പോൾ ഒന്നോ രണ്ടോ ബക്കറ്റിൽ വെള്ളം എടുത്ത് വെക്കുക എന്നിട്ട് അതുകൊണ്ടുതന്നെ ഉപയോഗിക്കുക വാല്ലാണ്ട് പൈപ്പ് തുറന്ന് ഇടുക അങ്ങനെയുള്ള പരുപാടിയൊക്കെ ചെയ്യുമ്പോളാണ് കൂടുതൽ വെള്ളം നമുക്ക് നഷ്ടം ആവുക ഇപ്പോൾ ഒന്നോ രണ്ടോ ബക്കറ്റിൽ എടുത്ത് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് അതിൽ തന്നെ തുണി സെറ്റാക്കി വിടുകയും ചെയ്യാം ക വെള്ളം പാഴാകാണ്ട് യൂസ് ചെയ്യുകയും ചെയ്യാം